പഴയ ഫാഷനും പുതിയ ഫാഷനും വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം പഴയ രീതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉള്ള ആൾക്കാര് നല്ല പഴയ രീതിയിൽ വന്നിട്ട് മാറി മറയ്ക്കാൻ മാറു മറയ്ക്കാൻ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു തലമുറ മാറി മാറി പിന്നെ സാരിയിലോട്ടും സെറ്റ് സാരി പിന്നെ പാവാട ധാവണി അങ്ങനെ ഉള്ളതൊക്കെ മാറി ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി മാറി എന്ന് തന്നെ പറയാം വസ്ത്രം എങ്ങനത്തെയാണെന്ന് ചോദിച്ചാൽ ജീൻസ് പാൻറ് ഷർട്ട് അങ്ങനത്തെയെല്ലാമാണ് ടോപ്പുകള് ലഗിൻസ്സ് അങ്ങനെയെല്ലാമാണ് എല്ലാവരും ഇപ്പോൾ സജഷൻ ചെയ്യുന്നതും എല്ലാവരും ധരിക്കുന്നതൊക്കെ എല്ലാം ഇപ്പോൾ ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ ഏതാ വാങ്ങുക എന്ന് ചോദിച്ച് വന്നാ ഞാൻ ചുരിദാർ വാങ്ങാറുണ്ട് ജീൻസ് വാങ്ങാറുണ്ട് ടോപ്പ് വാങ്ങാറുണ്ട് ജീൻസിന് പറ്റിയ ടോപ്പ് വാങ്ങാറുണ്ട് പിന്നെ ലഗിൻസും ടോപ്പും വാങ്ങാറുണ്ട് പിന്നെ വന്നിട്ട് ഫ്രോക്ക് വാങ്ങാറുണ്ട് ലഹങ്ക അങ്ങനെ കുറേ വാങ്ങാറുണ്ട് പാലക്കാട് നിന്നാണ് വാങ്ങുക പാലക്കാടെന്ന് പറഞ്ഞാൽ പ്രൈസ്ലെസ്സ് ആയതുകൊണ്ട് അവിടെയാണ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഫാമിലി മൊത്തം എല്ലാവരും കൂടിയിട്ടാണ് പോയി വാങ്ങാറുള്ളത് എല്ലാ സാധനങ്ങളും അവിടുന്നാണ് വാങ്ങുക എല്ലാ തരത്തിലും പഴയതും പുതിയതുമായിട്ട് നല്ല ഡിഫറൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ എല്ലാം നല്ല ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ബോറായ രീതിയില് ആരും ഇപ്പോഴത്തെ നാട്ടിൽ ആരും അങ്ങനെ വസ്ത്രം ഒരു ബോറായ രീതിയിൽ ഉടുക്കുന്നില്ല എന്നൊരു കൺസെപ്റ്റ് ആണ് എന്റേതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചുരിദാറിലോട്ടും ജീൻസ് അതിലോട്ടൊക്കൊ പോകുമ്പോൾ അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള സംഭവമാണല്ലോ അവര് ഇടുന്നത് അപ്പോൾ അത് നമ്മൾക്ക് കുറ്റം പറയാൻ യാതൊരു റൈയ്റ്റ്സും ഇല്ല പക്ഷേ നമ്മൾക്ക് കാണുന്നവർക്ക് ചിലപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടും ഒരേ പോലെ ആവണമെന്നില്ലല്ലോ ചിലവർക്ക് ഇഷ്ടപ്പെടാം ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എല്ലാ മോർഡനായിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സുകൾ നമ്മള് ധരിക്കണം കാരണം നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷനിൽ ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് വ്യത്യസ്ത തലത്തിൽ ആയിരിക്കും നമ്മള് ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നതും അതുപോലെത്തന്നെ വാങ്ങുന്നതൊക്കെ അങ്ങനെ ആയിരിക്കണം അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം ശീലിച്ചു പോയാലും നമുക്ക് അപ്പോൾ ആ ഒരു ഇനി ഒരു നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ അങ്ങനെ കുറ്റം പറയാൻ രീതിയിൽ കാരണം മോശമായിട്ട് എന്ന് പറയാൻ രീതിയിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെ കൺസെപ്റ്റ് എൻ്റെ കാഴ്ചപ്പാടില് ഞാൻ പറയുകയാണ് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അച്ചടക്കത്തോടെ തന്നെയാണ് നടക്കുന്നതും ഡ്രെസ്സിൽ ഡ്രസ്സിൻ്റെ കാര്യം ആയാലും അങ്ങന തന്നെയാണ് എല്ലാം അവർക്ക് കൺഫർട്ടായ രീതിയില് അവര് ഡ്രസ്സ് ചെയ്തിട്ട് അവര് നടക്കണു അല്ലാണ്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാത്രം അങ്ങനെ അങ്ങനെയൊന്നും ഒന്നുല്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാടില് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഓക്കെ ആണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവര് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവർ ചൂസ് ചെയ്തിടുന്നു അതില് നമ്മൾ ഒന്നും പറയാനുള്ള റൈയ്റ്റ്സ് ഒന്നും നമുക്കില്ല പക്ഷേ പണ്ടത്തെ ആ ഒരു വസ്ത്രരീതിയും ഇപ്പോഴത്തെ ഒരു വസ്ത്രരീതീയും എൻ്റയർലി ഡിഫ്രറെൻറ് ആണ് നല്ല ഡിഫറെൻറ് ആണ് പറഞ്ഞാൽ നല്ല ഡിഫറെൻറ് ആണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് എല്ലാവരും എവിടെയും കാണാത്തക്ക വയറൊക്കെ കാണാത്ത രീതിയിലാണ് സാരിയൊക്കെ ഉടുക്കുന്നത് നല്ല അച്ചടക്കത്തോട് കൂടിയൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകാനൊക്കെ എല്ലാവരും സാരി അതിനൊക്കെ ഉടുക്കാറുണ്ട് പക്ഷേ എല്ലാവരും നല്ല ഡിഫറെൻറ് ആയ രീതിയിലാണ് തന്നെയാണ് വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുള്ളത്